പരമ്പരാഗത നീന്തൽ രൂപത്തിൽ നിന്ന് പ്രൊവശനൽ നീന്താനുള്ള വ്യത്യാസമെന്ന് പറയുമ്പോൾ പ്രൊവശനൽ നീന്തലോട്ട് വരുമ്പോൾ അതിലൊരുപാട് സ് വെ സ്റ്റൈലുണ്ട് ബട്ടർഫ്ളൈ അതുപോലെ തന്നെ ഫ്രീ സ്റ്റൈല് അങ്ങനെയൊക്കെ പറഞ്ഞൊരുപാട് സ്റ്റൈലുകളുണ്ട് അപ്പോൾ പരമ്പരാഗത രീതിയിൽ നീന്തുന്നത് അങ്ങനെയൊന്നും അല്ല അത് ഒരു നമുക്ക് നേച്ചുറലായിട്ട് കിട്ടുന്ന ഒരു രീതിയാണ് പാരമ്പരാഗത രീതീന്ന് പറയുന്നത് പ്രൊവഷണൽ രീതീന്ന് പറയുമ്പോൾ ഒരു കോച്ച് നിന്ന് പറഞ്ഞ് തരുന്നതാണ് പിന്നെ നീന്താനെനിക്ക് കൂടുതലിഷ്ടം കടലിൽ നീന്താനാണെനിക്കിഷ്ടം എന്ന് വെച്ചാൽ കടലിൽ ഈ ബാട്ടർ ഡെൻസിറ്റി വെള്ളത്തിന്റെ സാന്ദ്രത നല്ല ഹൈ ആണ് അതോണ്ട് തന്നെ കൂടുതൽ നേരം നമുക്കത് പൊങ്ങികിടക്കാൻ പറ്റും കുറച്ച് നീന്തലറിയാം എങ്കിൽ പൊങ്ങി കിടക്കാം പിന്നെ ഓരോ വലിയ കടലുകൾ വരുമ്പോൾ ആ കടലുകളെ താ ആ കടന്ന് നമ്മളപ്പുറത്തോട്ട് പോവുന്നത് ഭയങ്കര രസകരമായിട്ടുള്ളൊരു കാര്യമാണ് കടലൊരിക്കലും നമ്മളെ ചതിക്കത്തില്ല അത്രയും സന്തോഷം തരുന്നൊരു വേറൊരു എന്തുവ പറയുക എനിക്ക് അത്ര ഇഷ്ടപ്പെട്ട വേറൊരു കാര്യം ഇല്ലെന്ന് വേണോങ്കിൽ പറയാം ഉൾകടൽലോട്ട് നീന്തി നീന്തി നീന്തി നീന്തി പോവുക പിന്നെ ആഴങ്ങളിലേക്ക് മുങ്ങാങ്കുഴിയിടുക അതൊക്കെ എത്ര മുങ്ങാങ്കുഴിയിട്ട് ഈ ഷുപ്പി അല്ലെങ്കിൽ കടൽമണ്ണ് വാരിയെടുക്കുക അതൊക്കെ എത്ര രസമുള്ള കാര്യാണെന്നറിയാവോ ആ കടൽല്ലെ വെള്ളത്തിന്റെ ആ ഒരു എത്ര ശുദ്ധമായ വെള്ളം ഉപ്പ് വെള്ളം ആണെങ്കിൽ നമുക്കാ കടൽലെ മണ്ണങ് കാണാൻ പറ്റും അത്രയും ഭംഗിയാണ് കടലിൽ നീന്തുകാന്ന് പറയുന്നത് എനിക്ക് ഈ ലോകത്തിൽ ഏതൊരു തടാകത്തിലായാലും തടാകമോ കുളമോ കായലോ എന്തുമായിക്കോട്ടെ എല്ലാത്തിലും ഒരു എനിക്ക് നീന്തി കളിക്കാനും എന്തെങ്കിലൊക്കെ നീന്തി നീന്തലെന്നുള്ള ഒരാക്റ്റിവിറ്റിൽ ഏർപ്പെടാൻ ഞാൻ കൂടുതലും ആഗ്രഹിക്കുന്നത് കടലിലാണ് കടൽ അത് ഒരു ഒരു എന്താ പറയുക ഒരു എനിക്കതൊരു ഒരു തരണം ചെയ്യുന്നൊരു സാഹചര്യം കൂടിയാണ് അതത്രക്കും ചാലഞ്ചിങ്ങാണ് അത് കൊണ്ട് എനിക്ക് കടലിൽ കുളിക്കാനാണ് കൂടുതലിഷ്ടം